വിപണിയിൽ ധാരാളമായ ധാരാളം വസ്ത്രങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഫാഷനും നമ്മുടെ സ്റ്റിച്ച് നമ്മുടെ ബോഡീ ഷേയ്പ്പിനും അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ തുണിയെടുത്ത് തയ്ക്ക് തയ്ച്ചെടുക്കുന്നതാണെനിക്കിഷ്ടം പിന്നെ പെട്ടെന്ന് ഒരാവശ്യത്തിന് വേണമെങ്കിൽ തയ്ച്ച റെഡി മേയ്ഡ് വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങിച്ചിട്ട് അതിന് ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിനനുസരിച്ചുള്ള വ്യത്യങ്ങളാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നയാണ് റെഡി മെയ്ഡ് വസ്ത്രങ്ങളുടെ വലിയ ശേഖരം നമ്മുടെ കടകളിലൊക്കെ ഉണ്ട് എന്നാലും നെയ്ത്ത് തുന്നിയതുമായ വസ്ത്രങ്ങൾ ധാരാളം സാധാരണ നമ്മളുപയോഗിക്കുന്നത് കേരള ടൈപ്പിലുള്ള സാരികൾ അങ്ങനെയുള്ള സാരികൾ നമുക്ക് യുണിയ്ക്കായിട്ട് മറ്റുള്ളതിൽ നിന്ന് ഡിഫറൻറ്റായിട്ട് എന്നാൽ നമുക്ക് സംതൃപ്തി കിട്ടുന്ന രീതിയിൽ വില കുറഞ്ഞതും ലോങ്ങ് ലാസ്റ്റിങ്ങായിട്ടും നിൽക്കുന്ന നിൽക്കുന്ന സാരികൾ വാങ്ങിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് പിന്നെ കല്യാണസാരികളൊക്കെ ആണെങ്കിൽ നമ്മൾ കാഞ്ചീപുരം അതിന്റെ ഈട് നിൽക്കുന്ന രീതിയിലുള്ള പുതിയ സാരികൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള നമ്മുടെ ഡിസൈനുകൾ പറഞ്ഞുകൊടുത്താൽ അവർ ചെയ്തു തരും അങ്ങനെ പരമ്പരാഗതമായ നെയ്ത്ത് ശാലകളൊക്കെ ഉള്ളയിടത്ത് പോയി ചിലർ വാങ്ങിക്കാറുണ്ട് അപ്പം നമുക്ക് പുതിയ സാധനങ്ങൾ ലഭിക്കുകയും ചെയ്യും ക്വാളിറ്റി വൈസ് നല്ലതായിരിക്കും പുതിയ സാധനങ്ങൾ ലഭിക്കും വിലയാണെങ്കിലും കുറേ സാരികളൊക്കെ എടുത്ത് എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ വിലയിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും അങ്ങനെ കാഞ്ചീപുരത്തൊക്കെപ്പോയി കല്യാണസാരികളൊക്കെ എടുക്കാറുണ്ട് ഫാഷനാണ് നമുക്കിങ്ങനെ ഓഡറ് ചെയ്തെടുക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ടും വ്യത്യസ്തമായിട്ട് നമുക്ക് കിട്ടുന്ന നമുക്ക് മറ്റുള്ളവർ മറ്റേ ഈ റെഡി മേയ്ഡ് ആയിട്ട് എടുക്കുമ്പം ഒരുപാട് എണ്ണം ഒരേ ടൈപ്പിലുണ്ടാവും അപ്പം നമ്മളിടുന്ന പോലെത്തന്നെയുള്ള അത് മറ്റുള്ളവരിടുന്നു നമുക്ക് യുണീക്കായിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നല്ല ഇതായിട്ടൊക്കെ ഉണ്ട് വേണം എന്നാഗ്രഹമുള്ളവർ തന്നെയല്ല കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ ബോഡീ ഷേയ്പ്പിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ വലിപ്പം കൂടുകയോ വണ്ണം കൂടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് അഴിച്ച് നീട്ടിയെടുക്കുകയും ചെയ്യാം അങ്ങനെ ഇതെല്ലാം കൊണ്ടും എനിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വസ്ത്രങ്ങളാണ് സാധാരണ ചുരുദാറ് അല്ലെങ്കിൽ നൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് എനിക്ക് താൽപ്പര്യം കാര്യം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഫാഷൻ ഉണ്ടായിരിക്കും എല്ലാരുടേയും പോലെയായിരിക്കില്ല നമ്മളൊരു യൂണിക്കായിട്ടിരിക്കും പിന്നെ വില കൂടിയ സാരികൾ വെഡ്ഡിങ് സാരി അല്ലങ്കിൽ കേരള സ്റ്റൈലിലുള്ള സാരി അതൊക്കെ നെയ്ത്ത് അവിടെപ്പോയി നെയ്ത്ത് ശാലയിൽപ്പോയി വാങ്ങിക്കുന്നതിഷ്ടമാണ് കാരണം കുറേ നാൾ ലാസ്റ്റ് ചെയ്യും നമുക്ക് അവിടേയും നമുക്ക് യൂണീക്കായിട്ട് നമുക്ക് പ്രത്യേകം ഡിസൈൻ പറഞ്ഞ് ചെയ്ത് എടുക്കാവുന്നയാണ് വെഡ്ഡിങ്ങ് സാരിക്കൊക്കെ ആണേലും വില കുറഞ്ഞും നമുക്ക് ലഭിക്കും നെയ്ത്ത് ശാലകളിലൊക്കെപ്പോയി നമ്മുടെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ഡിസൈനനുസരിച്ചും പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വില കിട്ടും വില കുറഞ്ഞ് കിട്ടും അപ്പം കുറച്ച് ലോങ്ങ് ലാസ്റ്റിങ്ങായിട്ട് സാരികൾ ലഭിക്കാറുണ്ട് അതുകൊണ്ട് കാഞ്ചീപ്പുരത്തൊക്കെപ്പോയി സാരികളെടുക്കുക എടുക്കാറുണ്ട് വെഡ്ഡിങ് സീസണിലൊക്കെ നമ്മളങ്ങനെ പോയി എടുക്കാറുണ്ട് രണ്ടും നല്ലതാണ് രണ്ട് രീതിക്കും നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ സാധാരണ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് എടുക്കാറുള്ളത്